ആ ഇപ്പം നമ്മൾ അങ്ങനെ പാചകപരമായിട്ട് കൂടുതലായിട്ടും നമ്മളങ്ങനെ യൂട്യൂബിലൊന്നും നോക്കി അങ്ങനെ കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല അപ്പം ഞാൻ സാധാരണ ഇങ്ങനെ കുക്കിങ്ങിനെ പറ്റി വലിയ ഫാൻ്റസി ആയിട്ടൊന്നും ചെയ്തിട്ടില്ല കൂടുതൽ ഞാനീ മുട്ട പൊരിക്കുക പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെറിയ ചെറിയ ഡിഷസ് ഒക്കെയാണ് ഞാൻ കൂടുതലായിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളത് ഇപ്പം ഞാൻ കൂടുതലായിട്ടും അങ്ങനെ നോക്കുമ്പോൾ ഇപ്പം യൂട്യൂബിലൊക്കെ കയറിയിട്ടാണെങ്കിൽ നമ്മള് നോക്കുമ്പോൾ അങ്ങനെ സ്പെഷ്യൽ ആയിട്ട് നമ്മളങ്ങനെ ചാനല് കാര്യങ്ങളൊന്നും നോക്കിട്ടില്ല പിന്നെ എന്താ പറയുക കുക്കിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മള് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് യൂട്യൂബിലുള്ള മലയാളികളുടെ ഓരോ ചാനലുകൾ തന്നെയാണ് അപ്പം അതിനകത്തൊക്കെ നോക്കുമ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അപ്പം നമുക്ക് അതില് ഇൻട്രസ്റ്റ് ഉള്ള സാധനങ്ങള് ഉണ്ടാക്കണന്നുണ്ട് അപ്പം നമ്മളിങ്ങനെ ട്രൈ ചെയ്യാനായിട്ട് ഇങ്ങനെ കുറെ സാധനങ്ങള് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടന്നല്ലാണ്ട് നമ്മള് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല അപ്പോൾ വീട്ടില് അമ്മയൊക്കെ കൂടുതലായിട്ടും എന്താ പറയുക ടിവിയില് പ്രോഗ്രാംസൊന്നും കണ്ടിട്ട് അങ്ങനെ വെക്കുന്നില്ല അവര് പണ്ട് തൊട്ട് എന്താ പറയുക അങ്ങനെ പാചക വിദ്യകളിലൊക്കെ പഠിച്ചു വന്ന് അവരുടേതായ ചില റെസിപ്പിസൊക്കെ യൂസ് ചെയ്തിട്ടാണ് അവര് കുക്ക് ചെയ്യുന്നത് അത് തന്നെ നല്ലൊരു ഡിഷ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ല ടേസ്റ്റി ആണ് അപ്പോൾ കൂടുതലും ഞാൻ അങ്ങനെ യൂട്യൂബിലോ ടിവിയിലോ കാണാണ്ട് തന്നെ നമ്മൾ ആമ്മേടെ അടുത്തുനിന്ന് നിന്നു തന്നെ ഒരുപാട് പാചക വിദ്യകള് പഠിക്കേ അതൊക്കെ ട്രൈ ചെയ്യാന്ന് അല്ലാണ്ട് യൂട്യൂബിലും അങ്ങനെന്നും നോക്കിയിട്ട് നമ്മള് ഇതുവരെ ചെയ്തിട്ടില്ല